ചെറിയ സംരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പ് ചെറിയ ചെറിയ ഷോപ്പുകൾ പലചരക്ക് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഷോ ഷോപ്പുകൾ അതുപോലെ കുറച്ച് ഫേൻസി ഷോ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് അതെല്ലാമാണ് ഇവിടെ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് എനിക്ക് അറിയുന്നത് പിന്നെ എന്താ പിന്നെ ഹൊ ചെറിയ സംരംഭം ആയിട്ട് ഹോട്ടൽ ടീ ഷോപ്പ്സ് അങ്ങനത്തെ ചെറിയ ബേക്കറി കൂൾ ബാർ എല്ലാം ഉണ്ട് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്രകൃതിദത്തമായി കിട്ടുന്ന ഇപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള ഇതു മാത്രം പറ്റുകയുള്ളൂ കാരണം കാര്യം ജ്യൂസ് ജ്യൂസിൻ്റെ ഒരു ഇത് അതെല്ലാമാണ് പറ്റുന്നത്